അതേ നമ്മുടെ കേരളത്തിലെ ഏറ്റവും ജനപ്രിയ വിനോദ രൂപങ്ങളാണ് പിന്നെ കഥകളി വേലക്കളി കോൽകളി സംഘംകളി പൂരംകളി മോഹിനിയാട്ടം പിന്നെ കഥകളി അങ്ങനെയൊക്കെയുള്ളത് അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് നാളുകൾക്ക് മുമ്പ് ഒറ്റയടിക്ക് പഠിക്കാൻ പറ്റുന്നതല്ല നമുക്ക് നിരന്തരമായ പരിശ്രമവും നല്ലൊരു ഗുരുവിൻ്റെ ശിഷ്യത്വവും ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കത് പഠിച്ചെടുക്കാൻ പറ്റുകയുള്ളു പിന്നെ ആത്മ ധൈര്യം വേണം നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള ദൃഢ ഇത് വേണം അങ്ങനെ എല്ലാവർക്കും പഠിച്ചെടുക്കാൻ പറ്റുന്നതല്ലത് നമുക്ക് മനസ്സിലൊരു ദി ദൃഢനിശ്ചയവും പിന്നെ ഒരു അതൊക്കെ ഒരു കഴിവാണ് ദൈവം കനിഞ്ഞു കൊടുത്തൊരു കഴിവ് കഥകളിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തേക്കുറിച്ച് പറയുമ്പം ഏറ്റവും ഇതാണ് കഥകളി വാൾപ്പയറ്റ് അതിലാണ് കളരി കളരി മനസ്സെത്തുന്നിടത് കയ്യെത്തണം കയ്യെത്തുന്നിടത്ത് മനസ്സെത്തണമെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളൂ വളരെ എന്താ പറയുക മുന്നിലോട്ട് വരേണ്ട പിന്നെ വിനോദ രൂപമാണ് എല്ലാവരും അതായത് നശിച്ച് പോകാതെ സംരക്ഷിക്കേണ്ട കുറച്ചു കലാരൂപങ്ങളാണത് ഒക്കെ കാരണം കാരണവന്മാരായിട്ട് നമുക്ക് കൈമാറി കിട്ടിയതാണിതൊക്കെ